മത്സ്യബന്ധം മത്സ്യങ്ങളെ പിടിക്കുമ്പോൾ പിന്നെ പലപല വെല്ലുവിളികളുമുണ്ട് ഞങ്ങൾക്ക് ഇവിടെ പ്രധാനമായിട്ടും ഞങ്ങള് ഞങ്ങളുടെ വാതുക്കല് ഒരു വലിയ കുളമാണ് കുളവും പിന്നെ കണ്ടവുമാണ് ഞങ്ങൾക്ക് അപ്പോൾ ഈ പിന്നെ ഇത് വരുമ്പോൾ ക പിന്നെ കണ്ടം വറ്റുമ്പോൾ ഞങ്ങൾക്ക് ഈ കുളത്തിലാണ് മീനെല്ലാം കൂടെ ഒരുമിച്ചു കൂടുന്നത് അപ്പോൾ ഞങ്ങള് ചൂണ്ട എടുത്തുകൊണ്ട് പോയി ചൂണ്ട എടുത്തുകൊണ്ട് പോയി അതിനെ നമ്മള് ഗോതമ്പുപൊടി മാവ് ഉരുട്ടി ചൂണ്ടയിൽ കോർത്തു

പിന്നെ നമ്മള് അങ്ങനെ ഇട്ടുകഴിയുമ്പോൾ ചിലപ്പോൾ ഈ മീന് ഇങ്ങനെ ഇട്ട് കൊത്തി നമ്മള് എടുത്ത് വലിക്കുമ്പോൾ നമ്മള് ഓർക്കാതെ ഇങ്ങനെ മീൻ കൊണ്ടുപോയി കൊത്തി വലിക്കുമ്പോൾ നമ്മള് അത് വലിച്ചിടുമ്പോൾ ചിലപ്പം നമുക്ക് അത് വലിച്ചിടുമ്പോൾ നമ്മൾ ചിലപ്പോൾ അത് കാലിൽ കുത്തും കയ്യിൽ കുത്തും കാരിയക്ക കുത്തിയാൽ ഭയങ്കര കഴപ്പാണ് ചുണ്ടയൊക്ക നമ്മുടെ കയ്യിൽ ഇങ്ങനെ കൊത്തി വലിക്കും കൊത്തിക്കോളും കൊത്തി കൊണ്ട് അത് വലിച്ച് അത് മുറിയുകയൊക്കെ ചെയ്യും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഒടക്ക് വല

പിന്നെ ആ ഒടക്ക് വലയൊക്കെ മീൻ നമ്മൾ എടുക്കുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് കല്ലുമുട്ടീ എന്ന് പറഞ്ഞ ഒരു മീനുണ്ട് ആ മീന് അത് ആ ഒടക്ക് വലയിൽ ചേർന്നിരുന്നാല് അത് നമ്മളൊന്ന് എടുക്കണമെങ്കിൽ നമ്മുടെ കയ്യും മുറിയും അതിൻ്റെ മുള്ള് കൊണ്ട് അതുപോലെ തന്നെ കാരിയൊക്കെ എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മുടെ കാരിയുടെ മുള്ള് കൊണ്ടാൽ നമുക്കത് വിഷമാണ് ആ കാരി ഒന്ന് ചിടച്ചാൽ ആ മുളള് നമ്മുടെ കൈ വഴി കയറി അങ്ങ് പോകും കയറി നമ്മളതിനെ തിരിച്ചെടുക്കുമ്പോൾ ആ ഒര് ചെറിയ മുള്ള് നമ്മുടെ കൈക്ക് അകത്തിരിക്കും അങ്ങനെ നമ്മള് പിന്നെ അത് പിന്നെ നമ്മൾ ആശുപത്രിയില് കൊണ്ടു പോകണം അത് പിന്നെ പഴുക്കും അത് സെപ്റ്റിക്കാകും അങ്ങനെ ഉള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെയുണ്ട് എന്നാലും നമുക്ക് വിഷമിലാത്ത മീന് നമുക്ക് നമുക്ക് നമ്മുടെ വതിൽക്കലിൽ നിന്ന് തന്നെ നമുക്ക് പിടിച്ചത് എടുക്കാം മറ്റേത് നമ്മള് കട മീൻ കൊണ്ടു വരുമ്പം ഒത്തിരി പഴകിയ മീനുകളായിരിക്കും മൂന്നും നാലും മാസം ആയതൊക്കെ ആയിരിക്കും ഇത് നമുക്ക് ഫ്രഷ് ആയിട്ട് നമുക്ക് എടുക്കാം